ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി നാന്നൂറ്റി മുപ്പത്തൊമ്പത് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി മുപ്പത്തൊമ്പത് നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുനൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി എട്ട് ഏഴ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഒന്പത്